പൊതുവേ അടുക്കളയിൽ വെച്ചുണ്ടാക്കണേനേറെ നല്ലതിഷ്ടം എനിക്ക് പുറത്തു നിന്ന് ഫുഡ് കഴിക്കാനാണ് അത് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത് എൻറ്റെയൊരു ആഗ്രഹമെന്നു പറയുന്നത് ഒരു വാഹനത്തിൽ കയറിയിട്ട് രാവിലെ മുതൽ പോയി കഴിഞ്ഞാൽ രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകുന്നേരത്തൊക്കെ ഫുഡ് പുറത്തു നിന്ന് കഴിക്കാനാണ് ഒന്നാമത് ചിലപ്പോൾ തട്ടു കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല നെയ് ചോറ് ചിക്കൻ പീസ് അവയ്ക്കുള്ള സാലഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർ നല്ലൊരു സാധാരണ ഒരു ഒരു കെമിക്കലില്ലാതെ വെയ്ക്കണതു കൊണ്ടു തന്നെ ഒരു ഞമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കണ ഒരു ടേസ്റ്റ് കിട്ടും അയ്ക്കൊരു കറിയൊക്കെയുണ്ടെങ്കിൽ പിന്നതുപോലെ തന്നെ ചില സമയത്ത് മന്തിയൊക്കെ നല്ല ഇഷ്ടം സോഷ്യൽ മീഡിയയിലൊക്കെ പലയാളുകളും പലതും കഴിക്കണ സമയത്ത് അപ്പം തന്നെ വണ്ടിയെടുത്തു പോയിങ്ങാണ്ട് പുറത്തു പോയി ഭഷണം കഴിക്കാൻ ഇങ്ങനെ തോന്നും മന്തിയും അതു പോലെ ആ ഷാവായിൻ്റെ പീസൊക്കെ എടുത്തു കൊണ്ട് അതിൽ കുഴച്ചിട്ടൊക്കെ കഴിക്കണ കാണുമ്പോൾ അതേപോലെ തന്നെ അതിൽത്തെ സലാഡൊക്കെ ആയിക്ക് ആട് ചെയ്തിട്ടൊക്കെ കഴിക്കണ കാണുമ്പോൾ നല്ല രസാ എനിക്കിഷ്ടമാണ് പിന്നെ അതേപോലെ തന്നെ വൈകിയിട്ടൊരു പിന്നെ ഒരു ചെറിയൊരു സ്നാക്സിൻ്റെ കടയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാൽചായയും അതേപോലെ തന്നെ കഴിക്കാൻ സ്നാക്സായിട്ട് നമ്മളുടെ ചിക്കൻ പൊക്കാവട അതേപോലെ തന്നെ എന്താ പറയാ നമ്മളുടെ എന്താ പറയുക കട്ലറ്റ് അതുപോലെ തന്നെ യിക്ക് നല്ല ടേസ്റ്റുള്ള സ്നാക്സുകളൊക്കെ കഴിക്കാറുണ്ട് പിന്നെ നമ്മൾ അതേപോലെ ജൂസ് കടയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്കിന്ന സാ ഇന്നത് കുടിക്കാട്ടാൽ അങ്ങനെ ജൂസിലൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അവിൽ മിൽക്കെനിക്കിഷ്ടമാണ് പിന്നെ കൂടുതലും ഞാനേ ലൈമാണ് കുടിക്കാറ് അപ്പോൾ കുട്ടികൾക്കതേപോലെതന്നെ ഹസ്ബൻഡിന് എപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ അഥവാ കയറി വന്നാലും ഹസ്ബൻഡിന് ആദ്യം ചോദിക്കാ ബീഫുണ്ടോ എന്നാണ് ബീഫ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ബീഫ് കഴിക്കുവാണെങ്ങി ഞാൻ പറയും എനിക്ക് ചിക്കൻ എനിക്ക് നേരെ ഓപ്പോസിറ്റാണ് ഞാനെടുക്കുക ബീഫ് അദ്ദേഹത്തിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിക്കനെടുക്കും അത് വറുത്തതാണെങ്കിലും അതേപോലെ തന്നെ അത് കടായിയാണെങ്കിൽ അത് ഇഷ്ടമാണ് അത് ഒരു നെയ് ചോറോ മന്തിയോ അല്ലെങ്കിൽ ബിരിയാണി ബിരിയാണിയും ഭയങ്കരിഷ്ടമാണ് ഹോട്ടലൊക്കെ കയറിയാൽ പകുതിയും ഞാൻ മന്തിയോ ബിരിയാണിയൊക്കെയാണ് പറയുക പിന്നെ ചിലപ്പം നമുക്ക് ചില സമയത്ത് നാടൻ ഫുഡ് കഴിക്കാൻ തോന്നും കാരണം നാടൻ ഫുഡ് കഴിക്കുമ്പോഴേക്കും ആദ്യം സാമ്പാർ അവിയൽ പച്ചടി കിച്ചടി തോരൻ പപ്പടം സ പായസമൊക്കെ ക കഴിക്കാണ് അപ്പോൾ ചിലപ്പോൾ ഞാൻ കൂടുതലും പോലെ ചോദിക്കണ സമയത്ത് അവിയൽ കൂടുതൽ ഇനി വേണോയെന്നു ചോദിക്കുമ്പോൾ അവിയൽ കുറച്ചു കൂടി തരുമോ ചോദിക്കാറുണ്ട് അതിന്മേൽ സാമ്പാർ കുറച്ചു കൂടി ഒഴിച്ചു തരുമോ ചോദിക്കാറുണ്ട് അതൊക്കെ ഭയങ്കരിഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ വേറെ നമ്മൾ കൂൾ ഡ്രിങ്ക്സിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക എന്താ പറയുക സമൂസ അതേപോലെ ഐക്ക് വേറെന്തെങ്കിലും മുന്തിരി ലൈമോ പിന്നതുപോലെ തന്നെ ഫലൂദ അതൊക്കെ ഇഷ്ടമാണ് ഭയങ്കരിഷ്ടമാണ് അങ്ങനത്തെയൊക്കെ പിന്നെ ചെറിയതായിട്ട് പിന്നെ സാൻവിച്ചിഷ്ടമാണ് പിന്നതുപോലെ തന്നെ ഈ എന്നാൽ എന്താ പറയുക ഈ ഷവായ ഉണ്ടല്ലോ അതിങ്ങനെ ആ ഒരു തീമേൽ കിടന്നു തിരിയുന്ന കാണുമ്പോഴും പിന്നെ നമ്മൾ പുറത്തേക്കു പോകുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെയാണല്ലോ ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ പല രൂപത്തിൽ ഇടയ്ക്ക് എന്നും പുറത്തു നിന്ന് ഫുഡ് കഴിക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാനിയങ്ങൊട് ഹസ്ബൻഡായിക്കോട്ടെ കുട്ടാളായിക്കോട്ടെ പിന്നതേപോലെ തന്നെ നമ്മുടെ തട്ടുകടയിലൊക്കെ ഉണ്ടാവുകേലെ ആംപ്ളേറ്റ് അത് ഭയങ്കര ഇഷ്ടമാണ് അത് കുട്ടികൾക്കും ഞങ്ങൾക്കുമൊക്കെ എപ്പളേലൊക്കെയൊന്നു ഞമ്മൾ ചിലപ്പോൾ ഫുഡ് കഴിച്ചു കൊണ്ട് ഫുഡ് കഴിച്ചിട്ടിറങ്ങണേന്നുണ്ടെങ്കിൽ ചിലപ്പൊരു ലഘു കടി ലഘു ഫുഡ്ഡെന്നുള്ള രൂപത്തിൽ ഞങ്ങൾ ആംപ്ളേറ്റൊക്കെ കഴിക്കലുണ്ട് ആ പുറത്തു നിന്ന് വാങ്ങണ ആംപ്ളേറ്റ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചായ അതേപോലെ തന്നെ മന്തി ഷവർമ അങ്ങനത്തെ കടകൾ നോക്കിയിട്ടു തന്നെ നടക്കാറ് അങ്ങനത്തെ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടവും പിന്നെ നാണ് നാടൻ ചോറുള്ള കടകളുണ്ടാ ചില സമയത്ത് നല്ല ടേസ്റ്റുള്ളതുണ്ടാകും ചില സമയത്തു നല്ല ചിലപ്പം മന്തി കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഇത് ഇഷ്ടമുണ്ടാകില്ല ചിലത് ചെ ആഗ്രഹിച്ചു കഴിക്കൊക്കെയാണ് പക്ഷേ നമ്മൾ ആ ആഗ്രഹം വെച്ചു പോകുമ്പോൾ ചിലപ്പോൾ നമ്മളാ ഇഷ്ടപ്പെട്ട ഫുഡ്ഡാകില്ല അത് അല്ലെങ്കിൽ ടേസ്റ്റുണ്ടാകില്ല എന്നാലും പുറത്തു നിന്നു കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടമാണ്